ഉയരം ഒരിക്കലും എനിക്ക് ഒര് പേടിയായി തോന്നിയിട്ടില്ല ഉയരങ്ങളുള്ള സ്ഥലങ്ങള് പാറയാണെങ്കിലും മലയാണെങ്കിലും വ്യൂ ടവറുകളാണെങ്കിലും കയറാൻ എനിക്ക് ഒരിക്കലും ഒരു പ്രയാസവും തോന്നിയിട്ടില്ല ഞാൻ പല സ്ഥലങ്ങൾലും ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലും പോവുമ്പോൾ ഇത്തരം സ്ഥലങ്ങളിലൊക്കെ കയറാറുണ്ട് ഉയരങ്ങളിൽ കയറിയിട്ട് താഴെ നോക്കുമ്പോൾ പൊതുവേ ഒരു ഭംഗിയുള്ള സീൻ ആകെ കാഴ്ചയായിട്ടാണെനിക്ക് തോന്നാറുള്ളത് പല സ്ഥലങ്ങൾല് ഇത്തരം ടവറുകളിൽ കയറാൻ കയറിയിട്ടുണ്ട് സൈലൻട് വാലിയിൽ പിന്നെ വ്യൂ ടവറിൽ അങ്ങനെ പല സ്ഥലങ്ങളിൽ ഞാൻ ഉയരം കയറിയിട്ടില്ല അതൊരു ഹോബിയായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല എനിക്ക് പൊതുവേ ഇഷ്ടം ഉള്ള കാര്യമാണ് ഇത്രം ഉയരം കയറുക എന്നുള്ളത് തുഷാരഗിരി കോഴിക്കോട് തുര തുഷാരഗിരി ടൂറിസ്റ്റ് കേന്ദ്രത്തില് ഉള്ള ഏറ്റവും മുകളിലുള്ള വെള്ളച്ചാട്ടം വരെ കാണാൻ വേണ്ടീട്ട് ഞാൻ പോയിട്ടുണ്ട് അതുകൊണ്ടിപ്പം ഉയരമുള്ള സ്ഥലങ്ങള് കാണാൻ എനിക്ക് പ്രത്യേക താൽപ്പര്യമാണ്